പോഷകാഹാരക്കുറവ് എന്ന് വച്ചാൽ നമ്മളെ അങ്ങനെ വലുങ്ങനെയൊന്നും ബാധിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വച്ച് കഴിഞ്ഞാൽ നമ്മള് ഗ്രാമ പ്രദേശത്ത് ആണെങ്കിൽ പോലും നമുക്ക് വേണ്ട എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ എത്തുന്നുണ്ട് അപ്പോൾ അതിന് ഇന്നത്തെ കാലത്ത് പോഷകാഹാരങ്ങള് എന്തെല്ലാം എന്ന് നോക്കിയിട്ടൊന്നുമല്ലല്ലോ ആരും ഇപ്പം കഴിക്കുന്നത് എല്ലാവരും ഫാസ്റ്റ് ഫുഡ് യുഗത്തിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ പോഷകാഹാരങ്ങളങ്ങനെ ആരും കഴിക്കുന്നില്ല അവരെല്ലാവരും പച്ചക്കറിയെല്ലാം മാറ്റിയിട്ട് ചിക്കൻ അതായത് കോഴി കോഴിക്കറി ബീഫ് അങ്ങനെയുള്ള മാംസ്യ ഉൽപ്പന്നങ്ങളല്ലേ കൂടുതലും ഉപയോഗിക്കുന്നത് പിന്നെ ശുദ്ധമായ വെള്ളം ശുദ്ധമായ വെള്ളം കിണറുകള് നമ്മള് ഗ്രാമ പ്രദേശത്തായതുകൊണ്ട് കിണറുകളെയാണ് വെള്ളത്തിന് വേണ്ടി ആശ്രയിക്കുന്നത് കിണറുകൾ നമ്മള് ശുദ്ധമായിട്ട് അതായത് വലയും കൊണ്ടക്കെ പൊതിഞ്ഞ് നല്ല ഭദ്രമാക്കിയിട്ട് മഴ വെള്ളം സംഭരിക്കാനായിട്ട് മഴക്കുഴികളും ഉണ്ട് അപ്പോൾ വെള്ളത്തിന് യാതൊരു ക്ഷാമവും ഇന്ന് വരെയുണ്ടായിട്ടില്ല പിന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ശുദ്ധ വെള്ളങ്ങള് വേണ്ടിയിട്ടായിട്ട് ജപ്പാൻ കുടിവെള്ളം പോലുള്ള പിന്ന കേന്ദ്ര സർക്കാരിൻ്റെ വാട്ടർ അതോറിറ്റിയിൽ നിന്നുള്ള വാട്ടർ കണക്ഷൻ ജപ്പാൻ കുടിവെള്ളത്തിൻ്റെ വാട്ടർ കണക്ഷൻ എന്നിവയെല്ലാം നമ്മളെ പഞ്ചായത്തുകള് എത്തിച്ച് തരുന്നതുകൊണ്ട് വെള്ളത്തിനായിട്ടൊരു വിഷമവും ഉണ്ടായിട്ടില്ല നല്ല ഭക്ഷണം ഭക്ഷണം ഗ്രാമ പ്രദേശമായത് കൊണ്ടുതന്നെ ഭക്ഷണത്തിന് നമ്മള് പച്ചക്കറിയും കാര്യങ്ങളും വീട്ടിൽ നിന്നുതന്നെ ഉണ്ടാക്കുന്നുണ്ട് ഈ ചേമ്പ് കാമ്പ് കൂമ്പ് അങ്ങനത്തെ ഉള്ള സാധനങ്ങള് പിന്നെ പച്ച ആ കറി ആയിട്ടുള്ള അരികള് അങ്ങനത്തെ അരികള് അങ്ങനത്തെ സാധനങ്ങളെ വാങ്ങേണ്ടി പുറത്ത് നിന്ന് വാങ്ങേണ്ടി വരുന്നുള്ളു അല്ലാതെ ഉള്ള കർമൂസ് പിന്നെ ചേമ്പ് ചേന ഇതെല്ലം കാച്ചില് ഇതെല്ലം നമ്മള് ഇവിടെ നിന്നുതന്നെ പറമ്പുകളില് ഉള്ളതുകൊണ്ട് അത് വച്ചിട്ടാണ് ഉണ്ടാക്കി എടുക്കുന്നത് പോഷകാഹാരക്കുറവൊന്നും അങ്ങനെ ബാധിക്കുന്നില്ല